ആ ഇത് പാസ്പോർട്ട് ഓഫീസല്ലേ ഇത് വയനാട്ടിൽ നിന്നായിരുന്നു വിളിക്കുന്നത് സജിൽ ആണ് പേര് എനിക്ക് ഞാൻ പാസ്പോർട്ടിന് അപേക്ഷിച്ചിട്ട് രണ്ടു മാസമായി എനിക്ക് ഇതുവരെ പാസ്പോർട്ട് കിട്ടിയിട്ടില്ല

എനിക്ക് ഈ അടുത്ത മാസം ഓസ്ട്രേലിയയിൽ പോകണമായിരുന്നു ഒരു പഠനത്തിൻ്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഓസ്ട്രേലിയ വരെ പോകണമായിരുന്നു അപ്പോൾ പാസ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല എന്തുകൊണ്ടാണ് ഡിലേ ആവുന്നത്

ആ അങ്ങനെയാണല്ലേ ഓ എത്രയും പെട്ടന്ന് ഇങ്ങോട്ട് അതൊന്ന് റെഡിയാക്കണം എനിക്ക് അടുത്ത മാസത്തിനുള്ളിൽ എന്തായാലും കിട്ടണം

ആ എന്തായാലും നിങ്ങൾ എത്രയും പെട്ടെന്ന് നോക്കു കേട്ടോ അത്യാവശ്യമാണ്